ഞാനൊരു വലിയ പാട്ടുകാരിയാണോ ഗായികയാണോ എന്നൊക്കെ ചോദിച്ചാല് തീര്ച്ചയായിട്ടും ഞാന് പറയും അല്ല എന്ന് കാരണം ഞാനൊരു ഒരു വലിയ ഗായികയോ പാട്ടുകാരിയോ ഒന്നും അല്ല പിന്നെ പാട്ട് എന്ന് പറയുന്നത് ഞാന് വെറുതെ ഒരു എന്റെ ഒരു വിനോദത്തിനു വേണ്ടി ഞാന് പാടുന്നതാണ് എന്റെ ഒരു ഹോബിയായിട്ട് ഞാന് പാടുന്നത് മാത്രമാണ് പാട്ട് അല്ലാതെ ഞാന് ശ ശാസ്ത്രീയപരമായിട്ടോ ഒന്നും സംഗീതം ഒന്നും പഠിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഞാൻ പരിശീലനങ്ങളും എടുക്കുന്നില്ല എനിക്ക് സന്തോഷം വരുമ്പം എനിക്ക് പാടണമെന്ന് തോന്നുമ്പോള് ഞാന് പാട്ട് പാടും അത്രയുള്ളൂ അതുപോലെ തന്നെ ഈ പാട്ടില് തന്നെ പല തരത്തിലുള്ള ഘടകങ്ങള് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും അറിഞ്ഞിട്ടല്ല ഞാന് പാടുന്നത് അതിന്റെ കറക്റ്റ് ഇങ്ങനെ അത് ശരിയായ രീതിയില് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊന്നും അറിഞ്ഞിട്ടല്ല ഞാന് പാടുന്നത് കാരണം ഞാന് നേരത്തെ പറഞ്ഞത് പോലെ തന്നെ ഞാനൊരു വലിയ പാട്ടുകാരി ഒന്നും അല്ല അപ്പോൾ പിന്നെ അതുകൊണ്ടുതന്നെ ഞാൻ ഇതുവരെയും പരിശീലനങ്ങളൊന്നും എടുത്തിട്ട് അതുകൊണ്ട് കൂടുതലായിട്ട് പരിശീലനങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് എനിക്കങ്ങനെ കാര്യമായിട്ട് ഒന്നും അറിയത്തില്ല എന്നാലും പലതരത്തിലുള്ള പാട്ടുകാരും ഒക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അവര് പലതരത്തിലുള്ള ഇങ്ങനെ പരിശീലനങ്ങൾ ഒക്കെ എടുക്കുന്നുണ്ട് എന്ന് അതില് ഞാന് കുറച്ച് കേട്ടിട്ടുള്ള സംഭവങ്ങളാണ് ഈ പാട്ടില് തന്നെ ഒരുപാട് തരത്തിലുള്ള കുറെ കാര്യങ്ങളുണ്ട് ഈ സംഗതി ശ്രുതി എന്താ താളം ഭാവം ഈണം എന്നൊക്കെ പറഞ്ഞിട്ട് അനുപല്ലവിയും പല്ലവിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു പാട്ടിന്റെ ഒരു ഘടകങ്ങളായിട്ട് വരുമ്പം അതൊക്കെ കറക്റ്റ് ആയിട്ട് ശരിയാക്കി പാടാന് വേണ്ടിയിട്ട് അവര് പലതരത്തിലുള്ള സംഗതികളൊക്കെ സ സ സോറി പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവര് ഏ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ശ്വാസം നിയന്ത്രിക്കുക എന്നു പറയുന്നത് അപ്പം ശ്വാസം നിയന്ത്രിക്കുന്നത് പാട്ടില് ഏറ്റവും കൂടുതല് ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് പാടാൻ പറ്റൂ ഇപ്പം പിച്ച് കൂട്ടി പാടുക പിച്ച് കുറച്ച് പാടുക ഇതിനൊക്കെ നമ്മള് ശ്വാസം കണ്ട്രോള് ചെയ്താലേ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളു ശ്വാസം ഇത്രമാത്രം പിടിച്ചു പാടുന്നു അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ശബ്ദം വെളിയിലേക്ക് കൊണ്ടുവരാന് പറ്റും എന്നാണ് ഞാന് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ അവര് വേറൊരു പരിശീലനം ചെയ്യുന്നതായിട്ട് ഞാന് കേട്ടിട്ടുള്ളത് ഈ സാധകം ആണ് അതായത് കഴുത്തറ്റം ഉള്ള വെള്ളത്തില് കിടന്നിട്ട് പാടുന്ന ഒരു സംഭവമാണ് അതും എനിക്ക് തോന്നുന്നു ശ്വാസം നിയന്ത്രിക്കാൻ അതിലൂടെ സാധിച്ചു അതുപോലെ തന്നെ ഒരു പാട്ടിന്റെ താളവും ഈണവും ഭാവവും ഒക്കെ അലിഞ്ഞ് പാടാന് വേണ്ടിയിട്ട് ഇവര് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ സാധകവും ഈ പാട്ടുകാര് വലിയ വലിയ ഉള്ളവരായിട്ടുള്ള പാട്ടുകാര് എല്ലാവരുമൊക്കെ ചെയ്യുന്ന ഒരു ഒരു പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണിത് എന്നാൽ ഞാനിത് വരെ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ച് ഒരുപാട് പറയാന് എനിക്കറിയത്തില്ല അറിയാന്നുള്ള കാര്യങ്ങള് മാത്രമേ ഞാനിവിടെ പറയുന്നത്